എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു കായിക ഇനത്തിനോടാണ് ഫുട് ബോൾ സൊ അത് കാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലയർ നെയ്മറാണ് കാരണം അവൻ ഓരോ സ്കിൽസ് ആണെങ്കിലും നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അവരുടെ ആ കളി കാണുമ്പോൾ അവരുടെ ആ വാശിയും ഇതൊക്കെ നമുക്ക് ടി വിയിലൂടെ കാണുമ്പോൾ നമുക്കും ഭയങ്കര വാശിയായിരിക്കും ഓ നമ്മളുടെ ടീം ജയിക്കണം എന്നൊരു എന്തിന് നമ്മൾ അത് ഭയങ്കര ആകാംഷയോടെ ആയിരിക്കും നമ്മൾ കളിക്കുമ്പോഴും നമുക്ക് ആ ഇതുപോലെ നെയ്മർ കളിക്കണ പോലെ കളിക്കാം ഇന്ന സ്കിൽസ് ചെയ്യാം അങ്ങനെയൊക്കെ ആയിട്ടും നമ്മൾ ഈ അടുത്തുള്ള കോച്ചിങ് സെന്ററുകളിലും അക്കാഡമിയിൽ ഒക്കെ പോയി അഡ്മിഷൻ എടുത്തും പഠിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറിനൊപ്പം ആയി തീരാൻ ഇഷ്ടം ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല സോ നമ്മൾ അതുപോലെ തന്നെ പ്രയത്നിക്കുകയൊക്കെ ചെയ്യും കാരണം ഈ ടി വിയിൽ ആണെങ്കിലും ഇപ്പോൾ ഫുട് ബോൾ കളി വരുമ്പോഴും വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് കാണുമ്പോൾ സോ നമ്മളുടെ ടീം ജയിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഗോൾ അടിക്കുമ്പോളോ അയാളുടെ കളി കാണുമ്പോളോ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും സോ അങ്ങനെയാണ്